ഹലോ ആ എന്ത് എന്താണ് എന്തേ വിളിച്ചത് മീൻ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് നല്ല മത്തി വന്നിട്ടുണ്ട് അയലയുണ്ട് കണവയുണ്ട് കരിമീനുണ്ട് ഷീലവുണ്ട് നൻമീൻ വന്നില്ല വന്നില്ല നേരത്തെ പറഞ്ഞാൽ വാങ്ങിച്ചു തരാം നൻമീൻ നൻമീൻ വന്നില്ല വരും

ഞണ്ട് ഒരു നൂറ്റിയൻപത് രൂപയാണ് കിലോയ്ക്ക് ആ കൊഞ്ച് നാന്നൂറ് രൂപ നാന്നൂറ് നാന്നൂറ് നാന്നൂറ് ആ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല കൊഞ്ച് നല്ലോണം നല്ല കൊഞ്ചിന് ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല അത് ചിലരൊക്കെ എല്ലാ ഭക്ഷണസാധനോം മൂ മുഴുവൻ പേർക്കും പിടിക്കത്തില്ലല്ലോ ചിലർക്കങ്ങനെ ഉണ്ടാകാം പക്ഷേ അത് കൊഞ്ച് കഴിക്കുന്നോണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അത് കാരണം അത് ഏത് കൂട്ടോ ചിലർക്കലർജിയുണ്ടാവോലോ ചിലർക്ക് ഏത്

ആ ഞണ്ട് മതിയോ നല്ല കണവ നല്ല കണവയുണ്ട് കണവ അത് ചെയ്യാം ചെയ്യാം ചെയ്യാം ചെയ്യാം ചെയ്യാം

അതെടുക്കാം അതെടുക്കാം നെയ്മീൻ നല്ല കഷ്ണം കിട്ടും നല്ലതാണ് നല്ല കഷ്ണങ്ങളാണ് അത് പതിവായി എടുക്കുന്ന ആളായോണ്ട് തന്നെ നമ്മളത് മോശമായ സാധനം ഇതുവരെ കൊടുത്തു വിട്ടിട്ടുണ്ടോ നല്ല സാധനമേ കൊടുത്തയക്കൂള്ളു അതെ അതെ അതുതന്നെ അതുതന്നെ ആത്മാർത്ഥമായിരിക്കും ആ അത് നമുക്ക് കൊടുത്ത് വിടാം ആ കൊടുത്തു വിടാം ആ കൊടുത്തുവിടാം കൊടുത്തുവിടാം ആ പൈസ ആ അത് പൈസ അത് ബാങ്കിൽ ഇതിലിട്ടാൽ മതി കേട്ടോ ആ അതുമതി അതുമതി അതുമതി അതുമതി അതുമതി ആ ആ അപ്പോൾ ശരിയെന്നാൽ ഏറ്റോം നല്ല സാധനം നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തയച്ചേക്കം അതെയതെയതെ അതെ ഫ്ര ഫ്രഷാണ് നല്ല ഇതാണ് നമ്മളിത് വരെ തന്നിട്ടില്ലല്ലോ ഫ്രഷ് ഫ്രഷല്ലാത്ത ഏതെങ്കിലും സാധനം ഇതുവരെ തന്നിട്ടുണ്ടോ അല്ല നല്ല നല്ല സാധനമേ കൊടുത്തയക്കൂ ആ ആ അതുകൊണ്ട് കൃത്യമായിട്ടും നല്ല സാധനം തന്നെ കൊടുത്തയക്കു കേട്ടോ അതിൽ ആ ശരി ശരി ആ ഓക്കെ ഓക്കെ ഓക്കെ